അതെന്നു പറയുമ്പോൾ സമ്മറെന്നു പറയുമ്പോൾ വേനൽക്കാലമാണ് ആ ഒരു ടൈമിൽ വയനാട്ടിൽ ഭയങ്കര രൂക്ഷമായ ചൂട് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഉച്ച സമയത്തൊക്കെയാണെങ്കിൽ പോലും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല അത്രയ്ക്കും ചൂടായിരിക്കും നമ്മുടെ മേൽ പൊള്ളി പോകുന്ന ചൂട് അങ്ങനെയൊക്കെ പറയില്ലേ അത്രയ്ക്കും ഇതായിരിക്കും വരൾച്ച ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സ്വാധീനിക്കുന്ന ഒരു സമയമാണ് വേനൽക്കാലം എന്നു പറയുമ്പോൾ ആ ടൈമിൽ മിക്ക ഇടത്തും തന്നെ വെള്ളത്തിന്റെ കുറേ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് വെള്ളം വേണ്ട വിധത്തിൽ ഒന്നും എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റില്ല വേണ്ടവിധത്തിലുള്ള വെള്ളം ലഭ്യമായിരിക്കില്ല നമുക്ക് ആ ടൈം എന്നു പറയുമ്പോൾ അതേപോലെത്തന്നെ ഇലകളൊക്കെ ഇല പൊഴിയുന്ന ഒരു ടൈം ആണ് ആ ടൈം എന്നു പറയുമ്പോൾ പിന്നെയുള്ളത് വിന്റർ സീസൺ ആണ് അതെന്നു പറയുമ്പോൾ മഞ്ഞു കാലമാണ് മഞ്ഞുകാലം എന്നു പറയുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ അയ്യോ ഭയങ്കര തണുപ്പായിരിക്കും എന്തു പറയുക നല്ല മഞ്ഞു മൂടി കിടക്കുന്ന ഒരു ടൈം എന്നൊക്കെ പറയാം പിന്നെ ഉച്ച സമയത്തോടടുക്കുമ്പോൾ അത് ഒന്ന് ചൂട് ആയിക്കൊണ്ട് ചൂട് ആയിക്കൊണ്ടിരിക്കും ഉച്ച സമയത്തോട് അടുക്കുമ്പോൾ അത് സാധാ നോർമലി ഉള്ള വെയിൽ ഒക്കെ ആകും അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല നോർമലി ഉള്ള വെയിൽ അതേപോലെതന്നെ സ്പ്രിംങ്ങ് സീസൺ എന്നു പറയുമ്പോൾ നമ്മുടെ സ്പ്രിങ്ങ് സീസൺ എന്നു പറയുമ്പോൾ വസന്തകാലം എന്നൊക്കെ പറയും മലയാളത്തിൽ വസന്തകാലം എന്നു പറയുമ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഒരുപാട് വിരിയുന്ന ഒരു കാലങ്ങളാണ് വൃക്ഷങ്ങളും എല്ലാം നല്ല രീതിയിൽ തഴച്ച് വളരുന്ന ഒരു സമയം തന്നെയാണ് വസന്തകാലം എന്നു പറയുന്ന ഒരു ടൈം പിന്നെ അതുപോലെത്തന്നെ വയനാട്ടിൽ ജൂൺ തൊട്ട് ഡിസംബർ വരെ വരുന്ന മാസങ്ങളിൽ ഒരു ആറുമാസം കാലഘട്ടത്തിൽ മഴക്കാലം എന്നൊരു കാലഘട്ടം കൂടി ഉണ്ട് മഴക്കാലം എന്നു പറയുമ്പോൾ ഒരു ഭയങ്കര മഴ ആയിരിക്കും നമുക്ക് ആ ഒരു ടൈം എന്നു പറയുമ്പോൾ എന്താ പറയുക വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നന്നായി വരുന്നതായിരിക്കും മണ്ണ് ഒലിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലയിടത്ത് വെള്ളം കയറുകയും ഓരോരുത്തരുടെ വീട് നഷ്ടപ്പെടുകയും പിന്നീട് വയനാട്ടിലെ ആളുകൾ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈം ആണ് ഈ മഴക്കാലം എന്നു പറയുന്നത് മഴക്കാലത്ത് ഓരോരുത്തർ ഓരോ വീടുകളിൽ അഭയം തേടുകയും സ്കൂളുകളൊക്കെ അടച്ചിടുകയും തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ പതിവ് എന്നു പറയുന്നത് വളരെ ശക്തമായ ഒരു കാലമായിരിക്കും ഇവിടെ ഒരു മഴക്കാലം എന്നു പറയുന്നത് ഇപ്പം നമ്മൾ ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിന്റേയും പാറകളൊക്കെ ഇടിച്ചു പരത്തുന്നതിന്റെയും ഭാഗമായിട്ട് പിന്നെ വയലുകളൊക്കെ നമ്മൾ പരത്തി അവിടെ വീട് പണിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മഴക്കാലം വളരെ ഒരു ഇതിൽ നമുക്ക് വരുന്നത് അതേപോലെത്തന്നെ വേനൽക്കാലത്താണെങ്കിലും പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചൂട് അല്ല ഇപ്പോൾ ഉള്ളത് ഭയങ്കര ചൂടാണ് അതേപോലെ മഴക്കാലം ആണെങ്കിലും ഇപ്പോൾ വരുന്ന മഴക്കാലം ഒക്കെ പണ്ടെന്ന് പറയുമ്പോൾ മഴക്കാലമൊക്കെ നമുക്കൊരു സന്തോഷത്തിൻ്റെ കാലമായിരുന്നു ഇപ്പം എന്നു പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു കാലമാണ് ബിക്കോസ് മഴക്കാലത്താണെങ്കിൽ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോവുകയും നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഫുഡ്ഡിന് ആണെങ്കിൽ പോലും വളരെയധികം ക്ഷാമം അനുഭവിക്കുന്ന ഒരു കാലമാണ് മഴക്കാലം എന്നു പറയുമ്പോൾ